ഇത് കേരളാ ഗ്യാസ് ഏജൻസി അല്ലേ ഞാൻ ഇപ്പോൾ നിങ്ങളെ വിളിക്കുന്നതിൻ്റെ പ്രധാന കാരണമെന്നു പറയുന്നത് എൻ്റെ ഗ്യാസ് സിലിണ്ടർ ഞാനിപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് മറ്റൊരു ആളിലേക്ക് കൊടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എൻ്റെ ഗ്യാസ് ബുക്ക് ചെയ്തു കൊണ്ടിരുന്ന നമ്പറെന്നു പറയുന്നത് ചുവടെ പറയുന്നതാണ് രണ്ട് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം മൂന്ന് ആറ് ഒന്ന് ഈ നമ്പറിലുള്ള എൻ്റെ ഗ്യാസ് ഏജൻസി മറ്റൊരു വ്യക്തിയിലേക്ക് കൊടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതു കൊണ്ട് എൻ്റെ പേരിലുള്ള ഈ ഗ്യാസ് ഏജൻസിയിൽ നിന്നും എനിക്ക് ദയവായി ഇളവ് നൽകണമെന്ന് ഞാൻ അഭ്യര്ത്ഥിക്കുന്നു